ആ പാലക്കാട് ജില്ലയില് അതിൻറ്റേതായ കുറെ കലാരൂപങ്ങളുണ്ട് അതിലൊന്ന് പൊറോട്ട് നാടകം പൊറോട്ട് നാടകം പറയുന്ന വെച്ച പാലക്കാട് കൂടുതലും നടക്കുന്ന ഒരു പരുപാടിയാണ് പഴയകാല പരുപാടികളിലൊന്നാണ് പിന്നെ കണ്യാർകളി കണ്യാർകളി അത് കുറവാണ് പിന്നെ കൂത്ത് പാവക്കൂത്ത് അങ്ങനെയുള്ള പരുപാടികളും പാലക്കാട് ജില്ലയിൽ കണ്ട് വരുന്നുണ്ട് തോൽപാവക്കൂത്ത് അങ്ങനെ കൂത്ത് നാടകങ്ങളെല്ലാം പഴയ ആചാരങ്ങള് പ കൂത്ത് നാടകങ്ങളെല്ലാം ഇന്നിപ്പോൾ കുറച്ചെ ഉള്ളു കാരണം അതെല്ലാം കമ്മിയായി കൊണ്ട് വന്നോണ്ടിരിക്കയാണ്